ആ ചേട്ടാ ഇതേ പണിക്കൻ കുടിയിൽ നിന്നായിരുന്നു വിളിക്കുന്നത് ഞാനൊരു ഇതേ കൂട്ട് മരപ്പണിക്കാരനായിരുന്നു പേര് ബിനു ജോസ് എന്നായിരുന്നു ആ നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് കളക്ഷന് വേണ്ടി ചന്ദനത്തിൻ്റെ കുറച്ച് തടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ ചന്ദനം സ്റ്റോക്ക് ഉണ്ടല്ലേ ഉള്ളതാണ് അല്ലേ ആ ആല്ല ആ ഉണ്ട് ഉണ്ട് എന്നാൽ പറ്റുമല്ലേ നമുക്കുണ്ട് ലൈസൻസ് ഉണ്ട് ഈ ഇടയ്ക്ക് പുതുക്കുകയും ചെയ്തതാണ് പുതുക്കി ആ ഡ്യൂ

ആ അതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ആ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് മൂന്നാറിൽ കട നടത്തുന്നുണ്ട് ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പം പുള്ളി അയച്ച ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പം നാല് പത്ത് പീസ് പത്ത് പീസ് ആ അതിൽ അല്ല ഇത് ഉരുപിടിയിൽ ആക്കി വച്ചിരിക്കുന്നതാണോ ഉരുപിടികളാക്കി വച്ചിരിക്കുന്നത് ആണല്ലേ ആ അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ക്യൂബിക്കടിക്ക് എന്ത് റേറ്റ് എത്രയാണ് തൂക്കമാണല്ലേ പതിവ് തൂക്കത്തിലാണല്ലെ മാറും മാറുവല്ലെ ഇത് വെള്ള വരുന്നുണ്ടോ അതോ പൂർണ്ണമായിട്ടും കാതല് കാതല് ബാക്കി വില കുറയും അല്ലെ ഉണ്ടല്ലേ നമ്മുടെ ഒരു ഇഷ്ടപ്പെടും നമ്മുടെ മില്ലിൽ കൊണ്ടുവന്ന് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത് മറയൂറിൽ നിന്നാണോ ലേലം വിളിച്ചെടുക്കുന്നത് ആണല്ലേ ഇപ്പം നമ്മുടെ മില്ലിൽ ആണോ നമ്മുടെ മില്ലിലാണോ അറക്കുന്നത് അതോ ഉരുളൻ തടി ആയിട്ടും കിട്ടുമല്ലേ കിട്ടുമല്ലേ ആ ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ അതോ നമ്മൾ തടിയുടെ കച്ചവടം മാത്രമേ ഉള്ളോ തടിയുടെ കച്ചവടം മാത്രമേ ഉള്ളു ആ ആ നമ്മൾ ഒരു മുന്നൂറ്റി ഇരുപത് കിലോ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ എത്തിച്ച് തരുമോ അതോ നമ്മൾ വണ്ടിയായിട്ട് വരണോ നമുക്ക് പോകണ്ടേ പോകാം ആണല്ലേ ആ വെട്ടുകാരല്ലേ ആണല്ലേ

ആ നമ്മൾ ഇപ്പം തടി കാണാൻ വന്ന് കഴിഞ്ഞാൽ ഇപ്പം നാളെ മോർണിംഗ് തടി കാണാൻ വേണ്ടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് തന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനം സൈറ്റിലെത്തിച്ച് തരും ബാക്കി പേയ്മെന്റ് ആ സമയത്ത് നടത്തിയാൽ മതിയോ സൈറ്റിൽ ആണോ ബില്ലെഴുതി കൊടുത്താൽ മതി ബില്ലെഴുതി പോരണം അല്ലേ ആ ആ ആ ഓക്കെ ഓക്കെ ആണല്ലെ

ഷോപ്പ് ആ ഷോപ്പ് തുറക്കുന്നത് എപ്പോഴാണ് ഒൻപത് മണിക്ക് തുറക്കും അല്ലേ അപ്പം രാവിലെ ഞാൻ വിളിച്ചിട്ട് വന്നുകൊള്ളാം ഓക്കെ ഓക്കെ എന്നാൽ ആയിക്കോട്ടെ വളരെ നന്ദി ഓക്കെ താങ്ക്യു ഓ ഓക്കെ